ഹലോ ചേച്ചി എന്ത് എന്തൊക്കെ പച്ചക്കറികളാണ് അവിടെ ഉള്ളത് തക്കാളിക്കും ഉള്ളിക്കൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്

അ പിന്നെ ബാക്കിയുള്ള ഐറ്റത്തിനൊക്കെയൊ അ അ അ അ അ അ പിന്നേ വേറെ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഉള്ളത് അ അ അ എന്തൊക്കെ ഫ്രൂട്ട്സാണ് അവിടെ അ അ അതിനൊക്കെ അപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത്

മറ്റേ വേറെ ക്വാളിറ്റി ഉള്ള വേറെ ക്വാളിറ്റീൻ്റെ ഉണ്ടൊ

ആണല്ലേ എനിക്ക് ഒരു കിലോ തക്കാളിയും അതുപോലെത്തന്നെ ഒരു കിലോ ഉള്ളിയും അങ്ങനെ പച്ചക്കറി ഐറ്റങ്ങള് കുറച്ച് ആവശ്യമുണ്ട് സാമ്പാർ കഷ്ണം ആയിട്ടും വേണം കുറച്ച് പിന്നെ അതിൻ്റെ കൂടെ അതല്ലാണ്ട് അ ഒരു കിലോ ഒരു കിലോ സാമ്പാർ കഷ്ണം വേണം അതുകഴിഞ്ഞിട്ട് അതുകൂടാതെ ഒരു കിലോ തക്കാളിയും ഒരു കിലോ ഉള്ളിയും അങ്ങനെ എല്ലാ സാധനവും ഓരോ കിലോ വെച്ചിട്ടും വേണം പിന്നെ ഫ്രൂട്സ് ഐറ്റത്തില് ഫ്രൂട്സ് ഐറ്റത്തില് ആപ്പിളും ഓറഞ്ചും ഉണ്ടോ അ ഓറഞ്ചും ഓരോ കിലോ എടുത്തൊ ഡെലിവറി ചെയില്ലല്ലൊ അവിടെവന്ന് വാങ്ങിക്കുകയല്ലേ വേണ്ടത്

അ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ വന്ന് മേടിച്ചേക്കാം ഓക്കെ എന്നാൽ